ഹലോ നമസ്കാരം ചേട്ടാ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു സാരി പർച്ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാരിയുടെ ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ടീട്ടാണ് വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു അമ്മയുടെ പിറന്നാളിന് വേണ്ടിട്ടായിരുന്നു ഞാൻ ആ സാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ക്വാളിറ്റി വളരെ അധികം നല്ല ക്വാളിറ്റിയുള്ള തന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്ക് എല്ലാം വളരെ നല്ല ഹൈ ക്വാളിറ്റി തന്നെയായിരുന്നു നിങ്ങള് ഹാൻഡ് മൈഡ് വർക്കാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്ക് കീപ് ചെയ്തിട്ടുണ്ട് അത് ഹാൻഡ് മൈഡ് വർക്ക് പോലെതെന്നെയുണ്ട് എൻ്റെ അമ്മ അത് കണ്ടിട്ട് വളരെ അധികം ഹാപ്പയിയായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിട്ട് അമ്മ ചുറ്റാം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ സ്റ്റിച്ചിങ്ങും ക്വാളിറ്റിയും ഒക്കെ എക്സെപ്ഷണൽ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അത്രക്കും നന്നായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട് ആ അതിൻ്റെ ഡിസൈൻ പാർട്ട് കാണിച്ച് നമ്മൾ വിചാരിച്ച പോലെത്തന്നെ നിങ്ങൾ കുറേ അധികം സെർച്ച് ചെയ്തതിന് ശേഷം മാത്രാണ് ഞങ്ങൾക്ക് കിട്ടിട്ടുണ്ടായിരുന്നത് സോ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ എക്സെപ്ഷണൽ സെർവീസസ് ഞങ്ങക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് എല്ലാത്തിനും ഞങ്ങള് ഒത്തിരി നന്ദി പറയുന്നു നിങ്ങള് ഇമ്മാതിരി അഫോർഡബിൾ റേഞ്ചിൽ സാരീസ് ഉണ്ടാകുന്നതും വളരെ ഹെല്പ് ഫുള്ളാണ് ഞങ്ങൾ സാധാരണക്കാർക്ക് വളരെ അധികം ഹെല്പ് ഫുള്ളാണിത് സോ നന്ദിയുണ്ട് ചേട്ടാ